ഹലോ സ്വിഗ്ഗിയല്ലേ ആ ചേട്ടാ ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് ഒരു അൽഫാമും ഒരു കുഴിമന്തികൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നിന്നാണ് ആ അതെ അതെ മേഴ്സി കോളേജ് കുറച്ച് നേരത്തെ കൊണ്ടുവന്നിട്ട് അവിടെയാണ് ചേട്ടാ ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ പെരി പെരി അൽഫാമും അതുപോലെതന്നെ കുഴിമന്തിയുമാണ് ഓർഡർ ചെയ്തത് നിങ്ങളത് കൊണ്ടു വന്നിരിക്കുന്നത് നോർമൽ അൽഫാമാണ് കൊണ്ടു വന്നിരിക്കുന്നത് അതുമല്ല ഇതിലത്തെ ചിക്കനൊക്കെ ഞാൻ നല്ല ജ്യൂസി ആൻഡ് ക്രിസ്പിയായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ അതിനകത്തൊന്നും വെന്തിട്ടില്ല ഉപ്പില്ല മൊത്തത്തിൽ ഒരു കൊളാബ്രേഷൻ ആയിട്ടുള്ള സംഭവമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അല്ലല്ലാ അല്ലല്ലാ ഞാനവിടെ സാധാരണ ഓർഡർ ചെയ്തിട്ടുള്ള അതേ ഹോട്ടൽ തന്നെയാണ് ചെയ്തത് പക്ഷേ ഈ പ്രാവശ്യം കിട്ടിയത് തന്നേ ഇതുപോലെ ഉള്ളിലൊന്നും വെന്തിട്ടില്ല എല്ലാം പച്ചിറച്ചി കഴിക്കുന്ന പോലെയുണ്ട് ഞാനത്യാവശ്യം നല്ല റേറ്റിങ്ങുള്ള ഹോട്ടലാണെന്ന് പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തത് ഇതിപ്പോൾ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അതേ അതേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞ അതല്ല എനിക്ക് ഞാനിത്രയും കാശ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളതിനുള്ള ബെനിഫിറ്റുള്ള ഫുഡാണല്ലോ എനിക്ക് തരേണ്ടത് ഞാൻ ഓർഡർ ചെയ്തൊരു ഫുഡ് നിങ്ങളെനിക്ക് കൊണ്ടുത്തതന്നതൊരു വേറൊരു ഫുഡ് ആ കൊണ്ടുവന്ന ഫുഡാണെങ്കിലോ മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത പോലുള്ള പച്ചിറച്ചി പോലുള്ള സംഭവമാണ് കൊണ്ടു തന്നിരിക്കുന്നത് ആ ആ കുഴിമന്തി കുഴപ്പമില്ല കുഴിമന്തിയല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് അൽഫാമാണ് പ്രശ്നം പറഞ്ഞത് അൽഫാം ഞാൻ പെരി പെരി അൽഫാമാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്

അല്ല ഞാനിത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങളാണല്ലോ കൊണ്ടുവന്നത് അപ്പോൾ നിങ്ങളെ വിളിച്ച് അറിയിക്കണമല്ലോ അതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാ ഇതിൻ്റെ പ്രൊസിജിയറെങ്ങനെയാണ് നിങ്ങൾ വന്ന് എടുക്കുമോ ഞാനതോ അതിൽ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് റിവ്യൂ കൊടുത്താൽ മതിയോ അല്ലല്ലാ വീട്ടിൽ വീട്ടിൽ തന്നെ ഇവിടെയുണ്ട് നിങ്ങൾ കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത്തിരി സൗകര്യമായിരുന്നു അതേ അതേ ഞാൻ ഓർഡർ ചെയ്തൊരു ഫുഡാണ് നിങ്ങൾ കൊണ്ടുവന്നത് വേറൊരു ഫുഡാണ് ഞാനിത്രയും കാശ് മുടക്കിയിട്ടൊരു ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അതിന് അതുതന്നെ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ അതേ അതേ മനസ്സിലാവുന്നുണ്ട് ചേട്ടാ ഞാനത് ക്യാൻസൽ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളതൊന്ന് വന്നിട്ട് പിക്ക് ചെയ്യുക എങ്ങനെയാണ് അതിൻ്റെ ബാക്കിയുള്ള അതെങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽമതി എനിക്കതിൻ്റെത് റീഫണ്ട് ചെയ്ത് കിട്ടണം കേട്ടോ കാശെനിക്ക് റീഫണ്ട് ചെയ്തു കിട്ടണം അല്ലിതൊട്ടും പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ഫുഡ് തന്നെ സെയിം ഫുഡ് കൊണ്ടു വരികയാണെങ്കിൽ കുഴപ്പമില്ല ഇത് കൊണ്ടുവന്നത് വേറൊരു ഫുഡ് ആ കൊണ്ടുവന്ന ഭക്ഷണമാണെങ്കിലോ അത് മോശായിട്ടുള്ള ഭക്ഷണവും ഇല്ല അത് ആ ഓക്കെ ഓക്കെ ശരി ശരി ഏട്ടാ ഓക്കെ ഇവിടെ തന്നെയുണ്ട് നിങ്ങൾ വന്നാൽമതി കേട്ടോ ഞാനവിടെ പുറത്ത് നിൽക്കാം പുറത്ത് നിൽക്കാം നിങ്ങൾ വന്നാൽമതി ഓക്കെ ഞാൻ ആ ഫുഡ് അങ്ങനെ പാക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഭക്ഷണം കൊണ്ടു പോയാൽമതി